ഞാൻ പോയിട്ടുള്ളത് ഇവിടെ അതായത് തൊള്ളായിരം കണ്ടി എന്നു പറഞ്ഞ മേപ്പാടി ഉള്ളൊരു സ്ഥലം ആണ് അവിടെ മെയിൻ ആയിട്ട് നല്ല രസം ആണ് കുന്നിൻ്റെ മണ്ടേൽ ഒക്കെ കേറി അവിടെ ഒരു ബ്രിഡ്ജ് കാണാൻ ഒക്കെ ആയിട്ട് നല്ല രസമാണ് അതായത് ഗ്ലാസ്സ് ബ്രിഡ്ജ് എന്താ പറയുക വയനാട്ടിലെ ഏറ്റവും വലിയ ഗ്ലാസ്സ് ബ്രിഡ്ജ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ മേപ്പാടി ഉള്ള തൊള്ളായിരം കണ്ടിയിൽ ആണ് അപ്പോൾ അതിൽ പോകുന്നത് തന്നെ നല്ല രസം ആണ് നമ്മളിപ്പൊ ഒരു ഓഫ് റോഡ് ക്ലയിമ്പിങ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഓഫ് റോഡ് കേറിയാണ് പോകുന്നത് അവരുടെ ജീപ്പ് ഉണ്ട് അവിടെ താഴെ തന്നെ നമ്മുടെ കുറേ ജീപ്പുകൾ ഒക്കെ നിർത്തിയിട്ടുണ്ടാവും അതുവഴിയാണ് അവരാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ വണ്ടിലും അല്ലാണ്ടും പോകാം പക്ഷേ നമ്മുടെ വണ്ടി എന്നു പറഞ്ഞു കഴിഞ്ഞാല് ജീപ്പ് ആണെങ്കിൽ വലിയ കുഴപ്പം ഇല്ലാണ്ട് പോകും ബൈക്ക് ആണെങ്കിലും കേറിപ്പോകും പക്ഷേ ബാക്കി ഉള്ള വണ്ടികള് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കേറിപ്പോകില്ല ഈ കാർ അങ്ങിനത്തെ വണ്ടികളൊക്കെ കേറിപ്പോകൻ ഭയങ്കര ബുദ്ധിമുട്ട് ആയിരിക്കും അപ്പോൾ അവിടെന്ന് ജീപ്പിൽ അതിനകത്തേക്ക് കേറ്റിയിട്ടാണ് മേലേക്ക് കൊണ്ടുപോകുന്നത് അത് നല്ല ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത് അതായത് നല്ല ഘട്ടർ ഉള്ള റോട്ടിൽ കൂടെ ആണ് അവരു കൊണ്ടുപോയത് നല്ലൊരു ഭംഗിയുള്ള യാത്ര ആയിട്ടാണ് നല്ലത് അതിൻ്റെ കുന്നിൻ്റെ മുകളിൽ കേറിക്കഴിഞ്ഞാൽ ആ ഗ്ലാസ്സ് ബ്രിഡ്ജിൻ്റെ മേലെ കേറിക്കഴിഞ്ഞതന്നെ നല്ല രസമാണ് കാണാൻ പുറമെ നോക്കിക്കഴിഞ്ഞാല് കുറെ കാടുകളും മലകൾ അങ്ങിനെ പലതരം കാഴ്ചകൾ നമുക്ക് അതിനു അകത്തുകൂടെ കാണാൻ ഉണ്ട് പിന്നെ അതിനകത്ത് കേറുന്നത് വലിയൊരു അനുഭവം ആണ് അതായത് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വീഴുമോന്നുള്ളൊരു പേടി ഒക്കെ ഉള്ളൊരു അനുഭവം ആയിട്ടാണ് എനിക്കിത് തോന്നിയത്